കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം എങ്ങനെയാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലും സുതാര്യതയിലും ഉറപ്പാക്കുന്നതെന്നു ചോദിച്ചാൽ മേൽനോട്ട സമിതികൾ വിവര സ്വാതന്ത്ര്യം പൊതു വിചാര വിചാരണകൾ വിചാരണകൾ സംസ്കാരം ഉൾച്ചേർക്കുക ഫലപ്രദമായ ആശയ വിനിമയം അധികാര ദുർവിനിയോഗം എന്നതൊക്കെ എന്നതൊക്കെയാണ് ഇതൊക്കെ ഉറപ്പുവരുത്താൻ പിന്നെയെന്നു പറഞ്ഞാൽ വിവര സ്വാതന്ത്ര്യമെന്നു പറഞ്ഞാൽ ഇപ്പോൾ ഫോണുകളൊക്കെ ഉള്ളതു കൊണ്ട് എല്ലാ വിവരങ്ങളും ഏത് സംസ്ഥാനത്ത് ഏത് പ്രദേശത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിൽത്തന്നെ ഇപ്പം നമുക്ക് ഫോണിലൂടെയും എല്ലാക്കാ നമുക്ക് കാണാൻ പറ്റും പിന്നെ മേൽനോട്ട സമിതികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലൊരു സർക്കാരിൻ്റെ എന്തെങ്കിലൊരു ഉത്തരവാദിത്വമൊക്കെ ഉള്ള ആളാണെങ്കിൽ അതിനു മേൽനോട്ടം വഹിക്കാനൊക്കെ അതിനു മേൽനോട്ടമൊക്കെ വഹിക്കുന്ന ആളുകൾ പിന്നെ സംസ്കാരം എന്നു പറഞ്ഞാൽ സംസ്കാരം എന്നു പറഞ്ഞാൽ പിന്നെ സംസ്കാരത്തെ അന്യനാട്ടിലുള്ള ആളുകളുടെ സംസ്കാരവും ഈ നാട്ടിലുള്ള ആൾക്കാരുടെ സംസ്കാരമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും വലിയ അധികാരമുള്ള ആളുകളൊക്കെ ആ അധികാരത്തെ വെച്ചിട്ട് ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്